ഇരുപത് മൂന്ന് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഒന്ന് ഏഴ് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പതിനഞ്ച് അഞ്ച് ആയിരത്തിത്തൊള്ളായിരത്തി അൻപത് ഇരുപത്തിയെട്ട് രണ്ട് ആയിരത്തി തൊള്ളായിരിത്തി തൊണ്ണൂറ്റി ഒൻപത് പത്ത് പത്ത് രണ്ടായിരത്തി അഞ്ച്